നമ്മുടെ പ്രദേശത്ത് വിനോദസഞ്ചാരികൾ ഹോം സ്റ്റേ സൗകര്യം നൽകുന്ന വീടുകളെക്കുറിച്ച് അറിയാം അടുത്ത് തന്നെ ഉണ്ട് ബ്രൈമൂറ് ഉണ്ട് മീൻമുട്ടി വെള്ളച്ചാട്ടം അവിടെ ആളുകൾ വരുന്നുണ്ട് പൊന്മുടി അവിടെ ആളുകൾ വരുന്നുണ്ട് അവർക്കുള്ള സേവനങ്ങളെന്ന് പറയുന്ന നൽകുന്നതെന്ന് പറഞ്ഞാൽ ഹോട്ടലുകളെ ഉള്ളു ധർമ്മശാലകളൊന്നും ഇല്ല പിന്നെ സൗജന്യമായിട്ടുള്ള താമസസ്ഥലവും അവർക്കില്ല പൈസ കുറച്ച് പൈസകൾ കൊടുത്ത് താമസിക്കുക താമസിക്കാം പക്ഷേ അവർക്കുള്ള ആഹാരങ്ങൾ വീടുകളിൽ തന്നെ ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അവർക്ക് വേറെ സ്ഥലങ്ങൾ കാണാൻ പോണമെന്ന് ഉണ്ടെങ്കിൽ അവർ വണ്ടി അവരെ ഇതിൽ തന്നെ അവരെല്ലാം ചെയ്തവർക്കുള്ള സൗകര്യങ്ങൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അവിടെ സാ വിനോദസഞ്ചാരികൾക്ക് വന്ന് പോവാൻ കോവളം കോവളത്ത് ആളുകൾ വന്ന് സ്റ്റേ എല്ലാം ചെയ്തു പോകുന്നുണ്ട് ഒന്നും ധർമ്മസ്ഥാപനം ധർമ്മസ്ഥാപനം അല്ല അല്ലാത പൈസ കൊടുത്ത് ചെയ്യുന്ന സ്ഥലങ്ങളാണ് ഇതെല്ലാം വിനോദസഞ്ചാരത്തിനും പിന്നെ ഹോം സ്റ്റേ സൗകര്യം എല്ലാം ഉള്ളത് കൊണ്ട് പിന്നെ അവിടെ തന്നെ അവർ ഭക്ഷണങ്ങളെല്ലാം വെച്ച് അവർക്കെന്താണ് ആവശ്യം എന്ന് പറഞ്ഞാൽ അതനുസരിച്ച് ചെയ്ത് കൊടുക്കുന്ന സ്ഥലങ്ങളാണ് പിന്നെ താമസസ്ഥലോം താമസോം സൗകര്യമാണ് ഈ സന്ദർശിക്കാൻ എത്തുന്ന അവർ അവരെ നല്ല രീതിയിൽ തന്നെയാണ് ആഹാരങ്ങളും ഇതെല്ലാം കൊടുത്ത് നല്ല രീതിയിൽ നോക്കി തന്നെയാണ് ഇവരെ നമ്മൾ തിരിച്ച് അവരെ അയക്കുന്നത്